മൃഗ വളർത്തലിൽ സാധാരണമായി ഉപയോഗിക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ വളർത്തുന്നത് പശുവാണ് പശു പരിപാലനയിൽ നമ്മളേറ്റവും കൂടുതൽ പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുന്നത് നല്ല പച്ചപ്പുല്ലാണ് പച്ചപ്പുല്ലിന് ലഭ്യത കുറയുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ നെല്ലിൻ്റെ കെട്ട് അല്ലെങ്കിൽ വൈക്കോൽ കെട്ട് കൊടുക്കാറ് പതിവ് പക്ഷെ കൂടുതലുമായും നമ്മൾ പച്ചപ്പുല്ല് തന്നെയാണ് കൊടുക്കാറ് അതുപോലെ തന്നെ നമ്മൾ കാലിത്തീറ്റകൾ പശുവിന് പാല് കുറയുന്നതിനനുസരിച്ച് കാലിത്തീറ്റകൾ കൊടുക്കാറുണ്ട് കാലിത്തീറ്റകൾ നല്ല ഗുണമേന്മയുള്ള കാലിത്തീറ്റകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവ മൃഗ വളർത്തലിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രസവ സമയങ്ങളിൽ അല്ലെങ്കിലതിന് മുമ്പോ അതിനു ശേഷമോ പയറ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചോളം സോയാബീൻ ഭക്ഷണം ഇതുപോലത്തെ അല്ലെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂട്തൽ കൊടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ വിഷയങ്ങളല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തടയാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്നാലും നമ്മൾ കൂടുതലും മൃഗ വളർത്തുന്ന അല്ലെങ്കിൽ പശു വളർത്തലിൽ വളർത്തുന്നതിൽ നമ്മൾ കൂടുതലും കൊടുക്കുന്നത് പച്ചപ്പുല്ലിൻ്റെ പച്ചപ്പുല്ലാണ് പച്ചപ്പുല്ല് തന്നെ സി ഓ ത്രീ അങ്ങനെ വിവിധയിനം പുല്ലുകളുണ്ട് അതാണ് നമ്മൾ കൊടുക്കാറ് ഉണക്ക ഉണക്കപ്പുല്ല് എന്നുള്ളൊരു ഇത് കൊടുക്കാറില്ല നമ്മൾക്ക് വേനൽക്കാലം ആവുമ്പോൾ പുല്ലിൻ്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ വരവ് കച്ചികൾ കൊടുക്കാറുള്ളത്